ഇന്നത്തക്കാലത്ത് ഗ്രാമപ്രദേശത്തുള്ള കർഷകർ പ്രധാനമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമാണ് ഇതുകൊണ്ടു തന്നെ അവരുടെ കൃഷിക്കൊക്കെ നാശം സംഭവിക്കുകയും വിളകളുടെ ഉത്പാദനക്കുറവ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാരണം ഭീമമായ നഷ്ടമാണ് കർഷകന് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ അവരുടെ കൃഷിയൊക്കെ ഉപേക്ഷിച്ച് ജീവിത വരുമാനത്തിനു വേണ്ടി മറ്റു മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടി വരുന്നതായിട്ട് ഉണ്ട് അതുപോലെതന്നെ ഈ സർക്കാരിൽ നിന്നുള്ള ധനസഹായമൊക്കെ കിട്ടാൻ യഥാക്രമം കിട്ടാത്തതുകൊണ്ടും കർഷകർക്ക് വലിയ ദുരിതത്തിലേക്കാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത് പിന്നെ പുതിയതായിട്ട് വരുന്ന സാങ്കേതിക വിദ്യകളും പുതിയ പരിശീലന രീതികളൊന്നും യഥാക്രമം കർഷകന് ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കൃഷിക്ക് അത് ഉപയോഗം ആവുകയൊന്നുമില്ല